ഇപ്പം എറണാകുളം ജില്ലയിലെ പ്രാദേശിക ഭരണകൂടങ്ങളേം രാഷ്ട്രീയ തലങ്ങളേം കുറിച്ചൊക്കെ പറയാണങ്കിൽ ഇവിടെ ആദ്യം എറണാകുളത്തിന് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനും പിന്നെ പതിയെ മൂന്ന് മുനിസിപ്പാലിറ്റിയുവാണുള്ളത് അതായത് അതല്ലാതെ താലൂക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ പഞ്ചായത്ത് ഓഫീസുകൾ ഇത് ഓരോ തലങ്ങളായിട്ട് വ്യത്യസ്തമായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ ഇതിന്റെയൊക്കെ തെരഞ്ഞെടുപ്പുകളും അതാത് രീതിയിൽ തന്നെ അഞ്ച് വർഷത്തിനിടക്ക് നടത്താറുണ്ട് പിന്നെ നമ്മുടെ ലോക് സഭാ തെരെഞ്ഞെടുപ്പ് ലോക് സഭയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ മെയ്നായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാന്ന്വച്ചഴിഞ്ഞാൽ നമ്മുടെ കളമശ്ശേരി വൈപ്പിൻ പറവൂർ അതുപോലെ തന്നെ കൊച്ചി തൃപ്പൂണിത്തുറ നമ്മുടെ തൃക്കാക്കര ഇത് ഇനി ഇതൊക്കെയാണ് നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങൾന്ന് പറയുന്നത് പിന്നെ ഇതിൽ നമ്മൾ തെരെഞ്ഞെടുപ്പ് അതായത് പാർലമെൻറ്റിലേക്ക് പാർലമെൻറ്റെലക്ഷനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ പഞ്ചായത്തെലക്ഷനും എന്ന ഇതിൽ രണ്ട് തരത്തിലുള്ള എലക്ഷനാണ് പൊതുവായിട്ട് നടക്കാറുള്ളത് അപ്പം അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു എം എൽ എയുടെ പേര് പറയാണങ്കിൽ റോജി എം ജോണാണ് നമ്മുടെ ഞ എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് അറിയാവുന്നൊരു എം എൽ എ എന്ന് പറയുന്നത് റോജി എം ജോൺ ഒരു നല്ല ഒരു എന്താ പറയാ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും വേണ്ടി പരിശ്രമിക്കുകയും ആവശ്യമുള്ളത് അതായത് റോഡിൻ്റെ വികസനം അതായത് നമുക്ക് ഗതാഗത സൗകര്യമാണേലും മികച്ച റോഡുകളൊരുക്കുന്നതിനും നമ്മുടെ ഗവണ്മെൻറ്റ് സ്കൂളുകൾക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിനുമെല്ലാം അധീവ ശ്രദ്ധ പുലർത്തുന്ന ഒരാളാണ് എൻ്റെ അറിവിൽ